ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ ആണ് ഇവയെല്ലാം അതായത് കൊതുകുകൾ പരത്തുന്ന ഈ രോഗങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി എന്തൊക്കെ രീതികൾ പിന്തുടരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുകുകൾ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള വെള്ളം തങ്ങിനിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊതുകുകൾ വന്ന് മുട്ടയിട്ട് അങ്ങനെയാണ് കൊതുകളുടെ വ്യാപനം അപ്പൊൾ അതില്ലാണ്ടാക്കലാണ് ഇതിനുള്ള ഒരേയൊരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പ്ലാസ്റ്റിക്കുകൾ ഒന്നും നമ്മുടെ വീടിൻ്റെ ചുറ്റും വലിച്ചെറിയാതെ ഇരിക്കുക പരമാവധി കാരണം അതിലാണ് കൂടുതലും വാട്ടർ ഇങ്ങനെ തങ്ങിനിൽക്കുന്നത് ഒക്കെ അപ്പൊൾ അത് പരമാവധി ഇല്ലാണ്ടാക്കുക അതുപോലെതന്നെ വെള്ളം തങ്ങിനിൽക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒന്ന് ഒഴിവാക്കുക ഇപ്പൊൾ ഏതേലും പാത്രത്തിലോ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മറിച്ചു കളയുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കുക കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ അസുഖങ്ങളൊന്നും നമുക്ക് വരില്ല അപ്പോൾ അതില്ലാതാക്കാൻ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഉള്ള വെള്ളങ്ങളോ തങ്ങിനിൽക്കുന്ന വെള്ളങ്ങൾ കാര്യങ്ങളൊക്കെ മറച്ചു കളയുക എന്നുള്ളതൊക്കെയാണ് അതുപോലെതന്നെ പ്ലാസ്റ്റിക്ക് ഉപയോഗം കുറയ്ക്കുക അത് പുറത്തേക്കൊക്കെ വലിച്ചെറിയാണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക